കളിക്കുന്നത് ഇപ്പം ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ബാസ്കറ്റ്ബോൾ ആണെങ്കിലും ഏതാണെങ്കിലും ഉൾനാടുകളിൽ പ്രയോജനം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പം ആരെങ്കിലും കണ്ട് നല്ല കളികളാണ് ഇഷ്ടപ്പെട്ട് അയാളെ ഉയർത്തി കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ തന്നെ വന്ന് സ്പോൺസർ ചെയ്യും അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ പറയും പഞ്ചായത്തുകളിൽ പറഞ്ഞിട്ട് നല്ല കൂടിയ ക്ലബുകളിലേക്ക് ഇപ്പം പല പല കൂടിയ ക്ലബുകളിലേക്ക് ട്രെയിനിങ് സെക്ഷന് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിടും അതല്ലാതെ വേറെ സ്പോർട്സ് സ്കൂളുകളിലോട്ട് അഡ്മിഷൻ കൊടുക്കും സ്പോർട്സ് ക്വാട്ട അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കൊടുത്ത് കയറ്റി വിടും ചിലരാകട്ടെ സ്വന്തം ജോലിക്ക് പോയി പൈസ ആയിട്ട് വരുന്നവർ സ്വന്തമായിട്ട് അവരെ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ഏതെങ്കിലും സ്റ്റോറുകളിലൊക്കെ പറഞ്ഞിട്ട് അയാളെ സ്പോൺസർ ആകാൻ പറ്റുവോ എന്ന് ചോദിക്കും എന്നിട്ട് സ്പോൺസർ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും ബൂട്ടും ജേഴ്സിയും പിന്നെ അയാളുടെ കാര്യങ്ങളെല്ലാം അവരേറ്റെടുക്കും അല്ലാതെ ചിലവർ ഈ ബാങ്കിലുള്ളവരൊക്കെ ഇങ്ങനെ ഉൾനാടുകളിൽ ചെന്നിട്ട് ആൾക്കാർ ബന്ധപ്പെട്ട് ചെയ്യുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ സ്പോർട്സ് ക്വാട്ട സ്കൂളുകളിലും അങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടു വരുന്നത് എല്ലാവരും കൊണ്ട് ചേർക്കുന്നത് പിന്നെ ആൾക്കാർ പിരിവുകൾ ചെയ്യുന്നുണ്ട് ഇന്ന ആൾക്കുവേണ്ടിയാണ് ഇന്ന ഇതിനു വേണ്ടിയാണ് പിന്നെ ഓരോ ട്രസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള ട്രസ്റ്റുകളിൽ ഇതുപോലെയുള്ള ഫണ്ടുകളൊക്കെ മാറ്റി വയ്ക്കും പിന്നെ സർക്കാരിൽ നിന്ന് ഇതിന് വേണ്ടിയുള്ള ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ ചിലവർ ടർഫിലൊക്കെ കൊണ്ടുപോയി കളിപ്പിക്കും നല്ല നല്ല ടീമിലോട്ട് ആഡ് ചെയ്യും അങ്ങനെ ലീഗുകളിലേക്ക് കളിക്കാൻ വിടും അങ്ങനെ അയാൾക്ക് പൈസ കിട്ടുമ്പോൾ സ്വന്തമായി ജീവിക്കാനുള്ള വരുമാനം ആവും സ്വന്തമായി നിന്നിട്ട് പഠിക്കാനും അങ്ങനെയുള്ള എല്ലാത്തിനും കിട്ടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നത് ക്ലബുകളിലേക്ക് കയറ്റി വിടുന്നതും പിന്നെ സ്പോർട്സ് ക്വാട്ട സ്കൂളുകളിലേക്ക് ഉയർന്നുയർന്നു മെമ്പർമാരും അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞ് ആൾക്കാരുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻ്റുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലേക്ക് അങ്ങനെ കയറ്റി വിടുന്നതാണ് സാധാരണ കാണാറ്